നമ്മുടെ അടുത്തിപ്പോള് ഇവിടെ കാണാൻ വിനോദ സഞ്ചാര കേന്ദ്രമെന്ന് പറഞ്ഞാല് വാഗമണ്ണാണ് അടുത്തുള്ളത് അവിടെ നല്ല നല്ല സ്ഥലമാണ് ഞാൻ പോയിട്ടുണ്ട് അവിടെ നല്ല തണുപ്പും കാണാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പൈൻ മരങ്ങളുണ്ട് അതിൻ്റെടയില്ക്കൂടൊക്കെ നടക്കാൻ നല്ല രസമാണ് പിന്നെ അതിന്റെ ഇടയില് മലകള് അങ്ങേപ്പുറത്തായിട്ട് മലകളൊക്കെയുണ്ട് അതിൻ്റെ ഇടയില്ക്കൂടെ നടക്കാം പിന്നെ മൊട്ടക്കുന്നുകൾ അവിടവിടെയായിട്ട് മൊട്ടക്കുന്നുകളുണ്ട് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് രസമാണ് ആ പിള്ളേരും കുട്ടികളും എല്ലാവരെയും കൂടെ കൊണ്ടുപോയി കാണിക്കാനും എന്നാലും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളെയൊക്കെ ഞങ്ങള് വാഗമണ്ണിലാണ് കൊണ്ടുപോകാറുള്ളത് ഇവിടെ പരുന്തും പാറയെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അതാണങ്കിലും അവിടെ നല്ല സ്ഥലമാണ് കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണം എങ്കിലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നെ ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെ മഞ്ഞു പോലെ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തും പാറയെന്ന് പറയും പരുത്തും പാ പരുന്തും പാറ അതും നല്ലതാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനും അവിടിരുന്ന് കാറ്റ് കൊള്ളാനും വർത്തമാനം പറയാനും ഒക്കെ നല്ല ഒരു സ്ഥലമാണവിടെ വാഗമൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് തണുപ്പാണങ്കിലും ചൂടുകാലത്താണങ്കിലും അവിടെ നല്ല ഒരു കാറ്റും തണുപ്പും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് വാഗമണ്ണെന്ന് പറയുന്നത് ഏറ്റവും നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ എല്ലാവരും ഒത്തിരി പേ വിനോദസഞ്ചാരികള് വരുന്നുണ്ടവിടെ വാഗമണ്ണില് സന്ദർശിക്കാനായിട്ട്

ബീച്ചുകളാണെങ്കിലും ഇഷ്ടം പോലുണ്ട് ആലപ്പുഴയിൽ ബീച്ചിൽ പോകാറുണ്ട് അവിടിരുന്ന് കടല കൊറിക്കാനും ഇങ്ങനെ കടലിലിറങ്ങാനും പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവിടുന്ന് പോരാൻ തോന്നത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാല്പ്പിന്നെ പിന്നെ സൺ സെറ്റും ഒക്കെ കണ്ട് വൈകിട്ട് വരാം വേളിയാണങ്കിലും അവിടെയും ഇതുപോലെ തന്നെ ബീച്ച് വേളി ബീച്ചിലും ശംഖുമുഖത്തും എല്ലാം പോകാൻ ഇഷ്ടം പോലെ വേറെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേരളത്തില് ബീച്ചുകളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള സ്ഥലങ്ങളുണ്ട് വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോള് സൂക്ഷിക്കണമെന്നു മാത്രമേ ഉള്ളു നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വെള്ളച്ചാട്ടം എല്ലാവർക്കും പിള്ളേർക്ക് തന്നെയല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വെള്ളച്ചാട്ടം കാണുന്നത് വെള്ളമെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ കുളിക്കാനും കളിക്കാം കളിക്കാനുമൊക്കെ പിള്ളേരിറങ്ങി പിന്നെ പറ്റത്തില്ല കുളിക്കുകയൊക്കെ ചെയ്യാം എന്നാലും അപകടങ്ങളൊക്ക ഉണ്ടാകുന്നുണ്ടെങ്കില്ത്തന്നെ അതൊക്കെ ഒത്തിരി സൂക്ഷിക്കുക അത്രേ ഉള്ളു എന്നാലും അതിനകത്ത് കാണാൻ നമുക്കെല്ലാവർക്കും നല്ല ഒരു സന്തോഷമാണ് വെള്ളച്ചാട്ടം കാണുന്നത് തന്നെ അങ്ങനെ എല്ലാം പല സ്ഥലങ്ങളിലുണ്ട് വെള്ളച്ചാട്ടങ്ങളും ബീച്ചുകളും എല്ലാം ബീച്ചിൽ ശംഖുമുഖവും വേളിയും ആലപ്പുഴയും വർക്കലയും കായലും പിന്നെ കായലാണങ്കില് കായലുകളിലൊക്കെ കാണാനും നമ്മള് വേമ്പനാട്ട് കായലിലും ബോട്ടിങ്ങിനു പോകാനും എല്ലാം നല്ല ഒരു സൗകര്യമാണ് ബോട്ടിങ്ങിനു പോകുന്നത് തന്നെ അതും നല്ലൊരു ഏർപ്പാടാണ് രാവിലെ ബോട്ടേല് കയറി കുഞ്ഞുങ്ങ കുഞ്ഞുങ്ങൾക്കൊക്കെ ബോട്ടേ കയറാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവര് കോട്ടയം ബോട്ടിങ്ങിനു പോയി രാവിലെ പോയി വൈകിട്ട് വരുന്ന ഒരു വൺ ഡേ ടൂറായിട്ടും അത് നമുക്ക്